സ്പോർട്സ് കാണുന്നതിന് ടെലിവിഷൻ്റെ ഉപയോഗത്തിന് നേരിയ കുറവുകൾ നേരിട്ടിട്ടുണ്ട് കാരണം അതിലേറ്റവും വലിയ കാരണം എന്നുവെച്ചുകഴിഞ്ഞാൽ ആൾക്കാരെ തിരക്കുകളാണ് ആൾക്കാർക്കിപ്പോൾ സമയം കിട്ടുന്നത് ടി വികളിലൂടെ തന്നെ കാണണം എന്ന് ഇപ്പോൾ ടെക്നോളജി അധികം വളരെ അധികം അഡ്വാൻസ്ഡായി നെറ്റ്വർക്ക് ഈസ് ബീയിംഗ് ദേർ ഈസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ദി നെറ്റ്വർക്ക് നെറ്റ്വർക്കിലൊക്കെ ഭയങ്കരമായ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ടി വിയിലെ കാഴ്ചകൾ ആൾക്കാർ പിന്നെ ആൾക്കാർ കുറയുന്നത് കാരണം ആൾക്കാരുടെ തിരക്കിട്ട ജീവിതത്തിൽ ആൾക്കാർക്കിതിനു വേണ്ടി മാറ്റി വെക്കാൻ സമയം ഇല്ല ഒരു സ്പോർട്സ് കാണുമ്പോഴാണെങ്കിൽപ്പോലും അപ്പോൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും അവിടെ ടി വി ഇല്ല അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും ടി വി വാങ്ങാനൊരിക്കലും പോവില്ല തന്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ടേൽ നെറ്റ്വർക്കെടുക്കുക അതുപോലെത്തന്നെ പകരം ഒത്തിരി സബ്സ്ക്രിപ്ഷൻസുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻസുണ്ട് സ്റ്റാർ സ്പോർട്സിൻ്റെ സബ്സ്ക്രിപ്ഷൻസുണ്ട് സൂര്യ മൂവീസിൻ്റെ അല്ലെങ്കിൽ സൺ ടി വിയുടെ സബ്സ്ക്രിപ്ഷൻസുണ്ട് ഇതുപോലെ പല സബ്സ്ക്രിപ്ഷൻസെടുക്കുക അതുപോലെത്തന്നെ ആ മൊബൈൽ ഫോണുകളിലിത് ഇതുപോലത്തെ കാര്യങ്ങൾ കാണുകയെന്നുള്ളതാണ് ആൾക്കാരിപ്പോൾ ചെയ്യുന്നത് കാരണം ആൾക്കാർക്ക് സമയം ഇല്ല സമയം ഇല്ലായെന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അതുപോലെത്തന്നെ ബിഗ്സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആരാധകരെല്ലാം ബിഗ് സ്ക്രീൻ ആ ഇപ്പോൾ ടെലിവിഷനുള്ളപ്പം ആ ഉണ്ടെങ്കിൽപ്പോലും ഒരു ടൗണിൽ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ കൂടി ആ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവും അങ്ങനെ വളരെ അധികം നേരിയ കുറവ് നമുക്ക് കാഴ്ച കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടി വി ഉപയോഗിക്കുന്ന കാര്യത്തിൽ സാങ്കേതിക വിദ്യയാണിതിനെല്ലാം എന്നാ ആ സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ടുതന്നെ സ്പോർട്സ് ആ അനുഭവം നമുക്ക് ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ട് കാണാൻ സാധിക്കുന്ന നമുക്ക് കിട്ടുന്നൊരനുഭവം വേറെയാണ് ബിഗ്സ്ക്രീനിൽ കിട്ടുന്നതും അതുപോലെത്തന്നെ ടി വിയിൽ കിട്ടുന്ന അനുഭവം വളരെ വ്യത്യാസമാണ് നമ്മളൊരു ഹോം തീയേറ്ററ് അതുപോലെത്തന്നെ ഹോം തീയേറ്ററിൽ വെച്ചൊരു തീയേറ്ററെന്ന ഒരു ആ സെറ്റപ്പിൽ നമ്മൾ തരുകയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നതിലേക്കേ പോവുള്ളൂ കാരണം ഓൾവേസ് പീപ്പിൾ ഗോ ഫോർ ദി ബെസ്റ്റ് വൺ എന്നുള്ളതാണേറ്റവും ബെസ്റ്റ് വണ്ണിലേക്ക് പോവുമെന്നുള്ളതാണ് നമ്മൾ വീട്ടിലിരുന്നെല്ലാവരും കൂടെ ഇരുന്ന് കാണുന്നതിനെക്കാളും നല്ലത് ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നത് സാങ്കേതിക വിദ്യ അത്രത്തോളം വളർന്നു അതിന് വേണ്ടീട്ടായിരം പേർക്ക് കാണാനുള്ള സ്ക്രീന് അവരുടെയടുത്തുണ്ടെങ്കിലാൾക്കാരെല്ലാം എത്ര കാശ് മുടക്കിയാലും നമ്മളാ ഒരു എന്നാ ഉവ്വ് എല്ലാവർക്കും തന്നെ ഒരു ബഡ്ജറ്റിലൊതുങ്ങുന്ന കാശായിരിക്കും അതിന് വാങ്ങുന്നത് അപ്പോൾ അത് മുടക്കി ആൾക്കാർ മിക്കവാറും തന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവും ഒരിക്കലും ആൾക്കാർ ടിവിയെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല അതുകൊണ്ടാണ് ടി വിയുടെ സൈസ് കൊണ്ടും അതുപോലെത്തന്നെ അതിന് വ്യത്യസ്ഥമായ ഉപയോഗങ്ങളില്ലാത്തതുകൊണ്ടുമാണാൾക്കാരിപ്പോൾ പല വീടുകളിലും ടി വി പോലും കാണുന്നില്ല കാരണം അവർക്ക് നെറ്റ്വർക്കുണ്ട് ടി വി ഉണ്ടാവും പക്ഷേ കേബിൾ കണക്ഷനൊന്നും ഉണ്ടാവൂല്ല അതുപോലെ ടി വി യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അവർ മിക്കവാറും തന്നെ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസായിരിക്കും എവിടെയും തിരക്കുള്ള സമയാണ് മൊബൈൽ ഫോണൊക്കെയൊന്ന് മാച്ച് കാണും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗുള്ള മാച്ച് കാണും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളെവിടെ ഇരുന്ന് വേണേൽ ചെയ്യുകയും ചെയ്യാം നമുക്കൊരിക്കലും ടി വി ഒരിക്കലും ഒരിടത്തും പൊക്കി പിടിച്ചുകൊണ്ട് പോവാൻ പറ്റുകയില്ല നമുക്ക് കാണാൻ വേണ്ടി അതുപോലെത്തന്നെ ആൾക്കാർ ന്യൂ ടെക്നോളജി വരുമ്പോഴത്തേക്കും ന്യൂ ടെക്നോളജിയുടെ പുറകെ പോവും അതുപോലെ ഫാൻസായിട്ടെല്ലാം ഇരുന്ന് കാണാനാണെങ്കിൽ അതിൻ്റെ പുറകെ പോവും സോ അന്ന് ടി വിയുടെ ഉപയോഗം അതിന് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ടി വിയുടെ ഉപയോഗം ആൾക്കാർ വളരെ അധികം കുറച്ചിട്ടുണ്ട്